ആശുപത്രിയില് ഇപ്പം നമ്മുടെ ഗവണ്മെന്റ് ആശുപത്രിയിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗവണ്മെന്റ് ആശുപത്രിയില് അത് ഗവണ്മെന്റ് തരുന്ന എല്ലാ സേവനവും സാധാരണക്കാരില് എത്തിക്കാന് ഗവണ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് സമയത്ത് കോവിഡ് സമയ കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരിയില് എല്ലാവരും ഒരുമ്മിച്ചു കൈകോര്ത്തു നിന്നു മാസ്ക് ഇടണ്ടിടത്ത് മാസ്ക് ഇട്ടു പിന്നെ മെഡിക്കല് രംഗത്തുള്ളവര് എല്ലാവരും ഒത്തൊരുമ്മിച്ചു ഇതാക്കി കാരണം അത് വലിയൊരു നമ്മളെ സംബന്ധിച്ചടുത്തോളം നമ്മള് ഈ ക്വാറന്റയിന് ലോക്ക്ഡൗൺ എന്നൊക്കെ കേട്ടിട്ട് പണ്ടുകാലത്ത് എപ്പഴോ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്നു ജോലിക്ക് പോവാതെ വിദ്യാഭ്യാസം ഒക്കെ വീട്ടിൽ തന്നെ മക്കളൊക്കെ ഓണ്ലൈന് വഴി പഠിക്കാന് തുടങ്ങി അപ്പം അതിനൊക്കെ ആ പിന്നേ അതായത് മെഡിക്കല് രംഗത്തൊള്ളവര് ആരോഗ്യ പരിരക്ഷാ വിഭാഗത്തിലൊള്ളവര് യുണിറ്റുകളായി തിരിഞ്ഞ് മാസ്ക് ഇടുക സാനിട്ടൈസര് യൂസ് ചെയ്യുക പുറത്തിറങ്ങരുത് സാം പിന്നെ സാമൂഹിക അകലം പാലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടു വച്ചത് കൊണ്ടാണ് നമ്മള് അതിൽ നിന്നൊക്കെ പിന്നെ രക്ഷപെട്ട് ഈ ഒരവസ്ഥയിലേക്ക് വന്നത്